റേഡിയോയില് നേരത്തേ ഒക്കെ റേഡിയോ കേള്ക്കാന് തന്നെയാണ് താല്പ്പര്യം പക്ഷേ ഇപ്പോഴതിന് സമയം കിട്ടാറില്ല കൂടുതലതിന് ടി വി ഉപയോഗിക്കുന്നതുകൊണ്ട് റേഡിയോയില് പ്രഭാതഭേരി കേള്ക്കുമായിരുന്നു ഇപ്പോള് കൂടുതലും എഫെമ്മൊക്കെ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോള് എഫെമ്മൊക്കെയാണ് കൂടുതലായിട്ടും കേള്ക്കാറുള്ളത് അപ്പോള് പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് പോവുകയാണ് പതിവ് അക്കൂട്ടത്തില് എന്തെങ്കിലും ന്യൂസുകള് വരുവാണെങ്കില് കേള്ക്കും അത്രേ ഉള്ളു പിന്നെ റേഡിയോയില് മീഡിയാ വില്ലേജിന്റെ എഫെം കേള്ക്കാറുണ്ട് പിന്നെ ന്യൂസുകള് കിട്ടമ്പോഴൊക്കെ ന്യൂസുകള് കേള്ക്കാന് ശ്രമിക്കാറുണ്ട് പക്ഷെ കൂടുതലായും ഇപ്പോള് റേഡിയോ അങ്ങനെ യൂസെയ്യുന്നില്ലാത്തതുകൊണ്ട് കൂടുതലും ടി വിയെ ആശ്രയിച്ചൊക്കെ തന്നെയാണ് ടി വിയും പിന്നെ മൊബൈല് വഴിയുള്ള ന്യൂസുകളും ഒക്കെയാണ് കൂടുതലും ആശ്രയിക്കാറുള്ളത്